സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റ് ഭാഷകൾ മലയാള ഭാഷയെ കുറേയധികം സ്വാധീനിച്ചിട്ടുണ്ട് സംസ്കൃതം ആണ് ലോകത്തിലെ എല്ലാം ഭാഷകളുടേയും മാതാവ് എന്ന് അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന ഭാഷ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ബാ പല ഭാഷകളും അതിൽ ഒന്ന് മാത്രമാണ് മലയാളം മലയാളവും സംസ്കൃതവും തമ്മിൽ വളരെയധികം സാമ്യം നമുക്ക് കാണാൻ സാധിക്കും പല പല വാക്കുകളിലും ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒഴിച്ചാൽ മലയാളം മലയാളത്തിൻ്റെ അമ്മ തന്നെയാണ് സംസ്കൃതം സംസ്കൃതത്തിൽ നിന്നാണ് മ മറ്റ് കാഷ്മീരിയടക്കം പല ഭാഷകളുടേയും ഉത്ഭവം സംസ്കൃതത്തിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷും മലയാള ഭാഷയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് ഒരു ആ ഒരു ഭാഷയിൽ നിന്ന് പല പല വേർതിരിവുകൾ വന്ന് ഇപ്പോൾ അച്ഛനെന്ന് പറയുന്നതിന് മലയാളത്തിൽ അച്ഛനെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഫാദർ സ്പാനിഷിൽ പാഡ്രെ പ് പി പിഡ്രി ആൻഡ് പിതാ ലൈക് ദാറ്റ് അങ്ങനെയൊക്കെ വന്ന് വന്ന് മലയാള ഭാഷയിലേക്ക് വരുമ്പോഴും ചെറിയൊരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെയും സംസ്കൃത ഭാഷയ്ക്കായാലും ഇംഗ്ലീഷ് ഭാഷയ്ക്കായാലും മലയാള ഭാഷയെ വളരെയധികം സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മലയാള ഭാഷ ഇന്ന് മലയാളികൾ പറഞ്ഞു നടക്കുന്നു അതിനെ അഭിമാനമായി കാണാൻ നമുക്ക് സാധിക്കുന്നത് അതിൻ്റെയൊക്കെ സ്വാധീനം ഇങ് സംസ്കൃതത്തിലായാലും ഇംഗ്ലീഷിലായാലും മലയാള ഭാഷയ്ക്കൊരു സ്വാധീനം നൽകുന്നത് കൊണ്ടുതന്നെയാണ്